ആ ചേട്ടാ ആ ഞാൻ ഒരു വീടിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ മുമ്പ് ആ ഒരു വീട് മേടിക്കാൻ ആയിരുന്നു അപ്പോൾ അതെ അല്ലെ വീട്

ഓക്കെ നമുക്ക് ഇപ്പോൾ ഒരു കുറച്ച് ഉള്ളിലോട്ട് ആയാലും കുഴപ്പം ഇല്ല വണ്ടി ബസ് സൗകര്യം ഒരുപാട് ടൗൺ ഏരിയ ഒന്നും വേണ്ട കുറച്ച് ഉള്ളിൽ ആയാലും ഈ ബസ് സൗകര്യം ഒക്കെ ഉള്ള ഹോസ്പിറ്റൽ സൗകര്യം ഒക്കെ ഉള്ള നമ്മൾക്ക് ഇപ്പോൾ കുറച്ച്

ആ ആ ഒരാൾ ഉണ്ടായിരുന്നു ആ നമ്മൾക്ക് ഇപ്പോൾ ആ അവിടെ എത്ര റൂം ഉള്ള വീടാണ് എന്നാൽ നമുക്കിപ്പൊൾ അത് എത്ര സെന്റ് സ്ഥലത്തിൽ ആണ് അഞ്ച് സെന്റിലാണ് പ്ലാൻ എന്താണെന്ന് വച്ചാൽ ഒരു പത്ത് ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലം കിട്ടിയാൽ നമുക്ക് വീട്ടിൽ തന്നെ കൃഷി കുറച്ച് കൃഷിയും കാര്യങ്ങൾ ഒക്കെ ചെയ്യാന്നുള്ള ഒരു പ്ലാൻ ഉണ്ട് അപ്പോൾ അതുപോലൊരു ആ കുറച്ച് സ്ഥലം അതുപോലെ വീട്ടിൽ കുറച്ച് പൂക്കളും ചെടികളൊക്കെ ഒക്കെ വച്ച് ഉണ്ടാക്കാനും പ്ലാൻ ഉണ്ട് ആ നമ്മൾക്ക് കുഴപ്പമില്ല നമ്മൾക്ക് ഇപ്പോൾ അതെ നമുക്ക് ഇപ്പോൾ ആ ഓ അത് രണ്ട് തവണ ആയിട്ട് തന്നാലും പോരെ നമ്മൾക്ക് എഗ്രിമെന്റ് വച്ചിട്ട്

ആ ഓക്കെ ആ നമുക്ക് ഇപ്പോൾ അത് അവിടെ ചുറ്റും ആ ഞാൻ ഫ്രീ ആണ് അല്ല അവിടെ എങ്ങനെയാണ് ചുറ്റും പ്രദേശങ്ങൾ ഒക്കെ

അവിടുത്തെ ആ പ്രദേശവാസികൾ ആ അല്ല അവിടെ ചുറ്റും താമസിക്കുന്നവരൊക്കെ

ഓക്കെ എന്നാൽ നമുക്ക് എന്നാൽ അത് ഒന്ന് പോയി കാണാം അതും പിന്ന വേറെ എവിടെയൊ പറഞ്ഞില്ലേ ഒരു പത്ത് സെന്റിൽ ഒരു വീട് ഉണ്ട് എന്നുപറഞ്ഞില്ലേ അഞ്ച് സെന്റിലോ നമുക്കൊന്ന് പോയി നോക്കിയിട്ട് അതെ അല്ലെ ഓ എന്നാൽ എന്നാൽ അതുപോയി കാണാം നമുക്ക്